ഊമ്പറാപ്പുവഴി ഞങ്ങൾ ക്ഷേത്ര സന്ദർശനവുമായി ബന്ധപ്പെട്ടൊരു വണ്ടി ബുക്ക് ചെയ് വണ്ടി ബുക്ക് ചെയ്യാൻ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടാരുന്നു അദ്ദേഹം കറക്റ്റ് സമയത്ത് വന്ന് ഞങ്ങൾ അവിടുന്ന് ഹസ്ബൻറ്റും ഞാനും മൂന്ന് കുട്ടികളുമായിട്ടാണ് ഞങ്ങൾ പൊവാൻ തിരുമാനിച്ചിരുന്നത് പക്ഷേ ഞങ്ങൾ യാത്ര തുടങ്ങി പക്ഷേ ഇദ്ദേഹം കോവിഡ് കോവിഡ് അതായത് കൊറോണ ടൈമിലുണ്ടായിരുന്ന യാതൊരു വിധ മുൻകരുതലും അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഉണ്ടായിരുന്നില്ല അദ്ദേഹം മാസ്ക് ധരിച്ചിരുന്നെങ്കിൽ കൂടിയും ശരിയായ വിധത്തിലുള്ള ഒരു മാസ്ക് ശരിയായ രീതിയിലുള്ള രീതിയിലല്ല മാസ്ക് ധരിച്ചിരുന്നത് അദ്ദേഹം അതായത് എന്താണ് പറയുന്നത് ശരിക്കും നമ്മളോട് പറയുന്നത് മൂക്കും വായും ശരിക്കും കവർ ചെയ്യാൻ പാകത്തിന് മാസ്ക് ധരിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം അങ്ങനെ ഒന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല തന്നെയുമല്ല ഇപ്പം നമ്മൾ കുട്ടികൾ ഒക്കെയായിട്ട് പോ പോകുമ്പം അത് യാത്രയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ കാർ എന്ന് പറയുന്നത് ഊബർ ആയതുകൊണ്ട് തന്നെ ഊബർ ടാക്സി ആയതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ആൾക്കാരുമായിട്ടും യാത്ര ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വ വന്നിരിക്കുന്നതായിരിക്കും വണ്ടി ശരിക്കും ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് നമ്മൾ അങ്ങനെ ഒരു ഇതൊക്കെ ഏജൻസിയിൽ ബുക്ക് ചെയ്ത് നമ്മൾ വരുമ്പം നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യം കൂടി മുൻകരു മുൻനിർത്തി കൊണ്ട് നോക്കണം അപ്പം നമുക്ക് പ്രധാനം പ്രാധാന്യം അതാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യം അല്ലായിരുന്നു അതിലുണ്ടായിരുന്നത് പിന്നെ കൈ കഴുകാനൊ ഇതായിട്ടുള്ള സാനിട്ടൈസർ ആ വക കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തന്നെയല്ല ഈ ഡ്രൈവർക്ക് ചെറിയ രീതിയിലുള്ള ജലദോഷവും ചെറിയ ചുമയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം മാസ്ക് ശരിയ രീതിയിലല്ല ധരിച്ചിരുന്നത് പിന്നെ എ സി ഇടുമ്പോഴൊക്കെ അറിയാമല്ലോ അങ്ങനെ നമ്മൾ എന്താണ് പറയുന്നത് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് പകരാനും സാധ്യതയുണ്ട് അപ്പം ഇതെല്ലാം ഞങ്ങൾ ഡ്രൈവറുടെ ശ്രദ്ധയിൽ പെടുത്തിയെങ്കിലും അദ്ദേഹം അത് അത് എന്താണ് പറയുക ഇപ്പം യാത്ര കുറേ ദൂരം യാത്ര ചെയ്യുമ്പോളുള്ള ബുദ്ധിമുട്ട് മാസ്ക് വയ്ക്കുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള അത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആ രീതിയിലുള്ള ചില സംസാരമാണ് ഉണ്ടായത് പക്ഷേ ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയൊരു സംഭവം ആണത് കാരണം നമ്മൾ ഊബർ ഒക്കെ ബുക്ക് ചെയ്തിട്ട് യാത്രക്കാരുടെ ഒരു സാഹചര്യം കൂടി അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വവും കൂടി നോക്കേണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരു ഒരു എന്താണ് പറയുക ഒരു സമീപനം ആ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കി അങ്ങനെ നമ്മൾ അത്രയ്ക്ക് വിശ്വാസം ഉള്ളത് കാരണം നമ്മുടെ എല്ലാ സ അതുകൊണ്ടാണല്ലോ നമ്മൾ ഊബർ ബുക്ക് ചെയ്യുന്നത് തന്നെ പക്ഷേ ഇത് ഇങ്ങനെ കുട്ടികളെയും കൂടി കൊണ്ട് പോകുമ്പോൾ നമ്മൾ അവരുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് വളരെ അധികം വിഷമം ഉണ്ടാക്കി അത് ഇനിയിപ്പം ഇനിയിങ്ങനെ ശ്രദ്ധിക്കുക കാരണം ഈ കോവിഡ് സാഹചര്യം ഉള്ളതുകൊണ്ട് ആണ് ഇങ്ങനെ നമ്മൾ മറ്റുള്ള ഒരാ മറ്റുള്ള ഒരാളുടെ ആരോഗ്യമെന്ന് നമുക്ക് പ്രധ പ്രധാനം തന്നെയാണ് പക്ഷേ അത് അങ്ങനെയൊരു സാഹചര്യം അല്ലായിരുന്നു ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ഉൾവശമാണെങ്കിലും അപ്പം അതിന് മുന്നേ യാത്ര പോയ പോയ ആൾക്കാരുടെ ക്ലീൻ അങ്ങനെ എന്താണ് പറയുക അധികമായിട്ട് വൃ വൃത്തിയാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണാവശിഷ്ടങ്ങൾ എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അതും ഇതൊക്കെ ശ്രദ്ധിക്കണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്ന പൈസ കൊടുത്തിട്ടാണ് ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്യുമ്പം ഇത്ര റേറ്റ് എന്നുള്ള രീതിയിലതിൽ ഫിക്സഡ് ആണല്ലോ എമൗണ്ട് നമുക്ക് പറയാം നമ്മൾ ബുക്ക് ചെയ്യുമ്പം തന്നെ നമുക്ക് പറയുന്നതാണ് അപ്പോൾ ആ പൈസ ഒക്കെ കൊടുത്ത് പോകുമ്പോൾ യാത്രക്കാരുടെ സൗകര്യവും കൂടി അവരുടെ ബുദ്ധിമുട്ടുകളും കൂടെ ഒന്ന് പരിഹരിച്ചിട്ട് അവരുടെ ഇതനുസരിച്ചുള്ള മാന്യമായ രീതിയിലുള്ള ഒരു സമീപനം ഡ്രൈർമാർ കൈക്കൊള്ളേണ്ടതാണ് ഇനിയത് ഇത് പോലെയുള്ള രീതി ന്താണ് പറയുക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക ഒരു മുൻകരുതൽ എന്ന നിലയിൽ പറയുകയാണ് സൂക്ഷിക്കുക